വർഷങ്ങൾ കൊണ്ട് തന്നെനെ ഇന്ത്യൻ വിനോദ വ്യവസായം ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം തെയ്യം തിറാ എന്ന് പറയുന്നത് ഈ കണ്ണൂരിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും തെയ്യം എന്നു പറയുന്നത് ഒരു വികാരം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിനോദ എന്താ പറയുക വിനോദം നൽകുന്ന ഒരു കലയാണ് ഈ തെയ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നൊരു നാടും കൂടിയാണ് കണ്ണൂർ തിറ തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് കലയും തെയ്യം തന്നെയാണ് കൂടിയാട്ടം പിന്നെ എന്താ കഥകളി ഇതൊക്കെ എന്താണ് ആൾക്കൃ ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദരൂപങ്ങളാണ് പിന്നെ അവർക്കെന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തെയ്യത്തിനോടൊരു വേറെ തന്നെ ഒരു വികാരമാണ് തെയ്യം എന്നു പറയുന്നത് തെയ്യം തൊടങ്ങുമ്പം തന്നെ ആൾക്കാർ ആൾടെ ഉള്ളിൽ ആൾക്കാരുടെ ഉള്ളിൽ ഓരോ രീതിയിലുള്ള ഉത്സവത്തിൻ്റെ ഓരോ ഒരു ഉള്ള മാറിക്കൊണ്ടു വരികയാണ് പിന്നീട് ആൾക്കാർക്ക് ഈ ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നൃത്തം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാട്ട് ആയിക്കോട്ടെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്